ഹോസ്റ്റലിൽ നിന്നാണ് എനിക്ക് ആദ്യമായി ഭക്ഷണം ഒറ്റയ്ക്കുണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി വന്നത് അഹങ്കാരത്തിൻ്റെ പേരിൽ ഞാൻ തന്നെ ഭക്ഷണം ആദ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു അതു വൻ പരാജയമായതിനാൽ ഞാൻ അതു ഉപേക്ഷിച്ചതിനു ശേഷം അമ്മയെ വിളിച്ച് അമ്മയുടെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ വാങ്ങിയശേഷം ഞാൻ പാചകം ആരംഭിച്ചു അമ്മയുണ്ടാക്കുന്ന അത്രയും നല്ലരീതിയിൽ വന്നില്ലെങ്കിലും മോശമല്ലാത്ത രീതിയിൽ ഒരു ഭക്ഷണമുണ്ടാക്കി ഞാൻ അന്ന് കഴിക്കുകയുണ്ടായി ഇന്നും എന്തുഭക്ഷണം ഉണ്ടാക്കുന്നതിനും മുമ്പ് അമ്മയോടു ചോദിച്ച് അമ്മയുടെ അഭിപ്രായം അറിഞ്ഞതിനു ശേഷം മാത്രമേ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയുള്ളൂ